നമ്മുടെ ഗ്രാമത്തിലെയൊക്കെയാളുകൾ വായ്പയെടുക്കാറുണ്ട് എന്തൊക്കെ കാര്യങ്ങള്ക്കാണെങ്കില് അവര്ക്ക് എന്തുവാ കുടുതല് ആള്ക്കാരും എടുക്കുന്നത് മക്കളുടെ പഠന സാഹചര്യങ്ങള്ക്ക് അതേപോലെത്തന്നെ വീട് വെക്കണമെങ്കില് അതിന് ആയിട്ട് ലോണ് പിന്നെ ബിസിനസ് തുടങ്ങാനുണ്ടെങ്കിൽ അതിനായിട്ട് ഇത് കൂടുതലും ഇവർ ബാങ്കുകൾ അല്ലെങ്കില് പലിശക്കാർ അങ്ങനെ അങ്ങനെ ആയിരിക്കും ദെ ഇതെടുക്കുന്നതിൽ ദൂഷ്യഫലമെന്ന് വെച്ചാൽ നമുക്കിപ്പം ആവശ്യം നമുക്കിപ്പോൾ ലോൺ അഞ്ച് ലക്ഷം ആണെന്ന് വെച്ചോ പക്ഷേ നമ്മളത് തിരിച്ചടച്ചടച്ചടച്ച് നമ്മൾ എത്ര കാലത്തടച്ചാലും അത് തീരത്തില്ല അഞ്ച് ലക്ഷത്തിനാണ് നമ്മൾ ലോണെടുത്തതെങ്കില് നമ്മൾ തിരിച്ച് ഏഴ് ലക്ഷം വരെയെങ്കിലും എടുക്കുമായിരിക്കും അങ്ങനെ ലോണടച്ചടച്ച് എത്രയടച്ചാലും നമ്മുടെ തീരത്തും ഇല്ല പണിയും ഒന്നും ആവത്തില്ല അങ്ങനെ ലോണെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ദൂഷ്യഫലമാണ് സാധാരണയാണ് എല്ലാവരും ലോണെടുക്കും വായ്പയെടുക്കും അത് ബാങ്കില് നിന്നാണെങ്കില് കുഴപ്പമില്ല കുറച്ച് പലിശ പക്ഷേ വേറെ വല്ല ആള്ക്കാരുടെ കയ്യാണെങ്കില് നമ്മൾ ഭയങ്കര പലിശയും എല്ലാം കൊടുക്കണം അങ്ങനെ വായ്പയെടുക്കുന്നത് ദൂഷ്യഫലമാണ് മീന്സ് നമ്മളിപ്പം അഞ്ച് ലക്ഷത്തിനാണ് എടുത്തതെങ്കിൽ നമ്മള് തിരിച്ചടക്കേണ്ടി വരുന്ന ചിലപ്പം പത്ത് ലക്ഷമായിരിക്കും മാസം അടച്ചടച്ചടച്ചടച്ച് ചിലപ്പോൾ കൂടുതലും ബാങ്കുകളില് നിന്നൊക്കെയാണെടുക്കുന്നത് അതേപോലെ തന്നെ സ്വര്ണം വെച്ചിട്ട് അതിനകത്തുനിന്ന് പൈസയെടുക്കും അങ്ങനെയങ്ങനെ പല പല ഇതായിട്ട് കൂടുതലും വീടുകള്ക്ക് വീട് വീട് വെക്കാന് വേണ്ടി പിള്ളാരുടെ പിള്ളേരെ പഠിപ്പിക്കാന് വേണ്ടി അങ്ങനെയങ്ങനെ കാര്യങ്ങള്ക്കാണ് വായ്പയെടുക്കുന്നത് വായ്പയെടുക്കുന്ന ദോഷഫലമെന്നുവെച്ചാൽ അവസാനം നമ്മൾ എന്ത് വെച്ചാണോ ചിലപ്പം നമ്മൾക്ക് എല്ലായ്പ്പോഴും പൈസ തിരിച്ചടക്കാന് പറ്റില്ലെന്ന് ചിലപ്പം ഭയങ്കര ഇങ്ങനെ അടക്കാന് പറ്റിയില്ലെങ്കില് നമ്മൾ എന്ത് വെച്ചാണോ വായ്പയെടുത്തത് അത് ചിലപ്പം ബാങ്കുകാരെടുക്കും അങ്ങനെയൊക്കെ കുറേ ദോഷഫലങ്ങളുണ്ട്